മലയാളികള് അവരുടെ സാംസ്കാരിക പാരമ്പര്യങ്ങൾ പാരമ്പര്യങ്ങളേ ആഘോഷിക്കാനും ആദരിക്കുവാനും ഉപയോഗിക്കുന്ന അവരുടെ ഭാഷ അവരുടെ ഭാഷ അവരുടെ പൈതൃകം പൈതൃകമായ കാര്യങ്ങളാണ് ഇപ്പം മലയാളികള് അവരുടെ സാംസ്കാരിക പാരമ്പര്യമെന്ന് വെച്ചാല് അവ കേരളപ്പിറവി ഓണം ഇതെല്ലാം നമ്മുടെ കേരളത്തിന്റെ ഭാഗമാണ് കേരളം മലയാളികൾ മാത്രം ആഘോഷിക്കുന്ന ഒരു ഉത്സവം നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം അത്പോലെ തന്നെ കേരളപ്പിറവി കേരളപ്പിറവീടന്നെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിലുള്ളവരായാലും എല്ലാവരും അന്നത്തെ ദിവസം കേരളപ്പിറവി ആകുമ്പം കേരളം ഉടലെടുത്ത ദിവസമാണ് അന്ന് ഓഫീസിലായാലും സ്കൂളിൽ പോകുന്നവരായാലും കേരളത്തിന്റെ തനത് തനിമയേ ഉള്ക്കൊണ്ട് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സെറ്റ് സാരിയുടുക്കുന്നു മുണ്ടുടുക്കുന്നു അമ്പലത്തില് പോകുന്നു ചന്ദനക്കുറി ഇടുന്നു അതുപോലെ തന്നെ കേരളം മലയാളികളവരുടെ സാംസ്കാരിക തനിമയില് നിന്നാണ് ഓരോ ദിവസം നമ്മുടെ ചിങ്ങം പിറവിയെടുക്കുന്നത് മുതൽ കര്ക്കിടകം വരെയുള്ള എല്ലാ മാസങ്ങളും അവരതിനകത്ത് ഉള്പ്പെടുത്തുന്നുണ്ട് ചിങ്ങത്തിലാകുമ്പം നമുക്ക് ഓണം വരും കന്നീലാകുമ്പം നമുക്കൊന്നും ചെയ്ത് കൂടത് മോശപ്പെട്ട മാസമാണെന്ന് പറയും നമ്മള് നല്ലതൊന്നും കന്നീ ചെയ്യില്ല തുലാത്തിലാകുമ്പം തുലാവര്ഷം വരും മേടത്തിൽ വിഷുവുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് കര്ക്കിടകത്തിൽ രാമായണം വായിക്കുന്നത് മുതൽ അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങള് നമ്മളുടെ മലയാളികളവരുടെ സാംസ്കാരിക തനിമയേ പിടിച്ച് നിര്ത്തിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഓണത്തിനായാല് പോലും ഓണക്കൈനീട്ടം കൊടുക്കുകയും പുതുവസ്ത്രങ്ങൾ മേടിക്കുകയും അത്തപ്പൂക്കളമിടുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നമ്മളുടെ നമ്മുടെ സംസ്കാര രീതീലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതവരുടെ ഭാഷയെ ഭാഷയെ പ്രതിനിധീകരിക്കുന്ന ഘടകങ്ങളാണ് ഓരോ കാര്യങ്ങളവർ ചെയ്യുന്നത് നമ്മളുടെ മലയാളം എല്ലാവരില് നിന്ന് മുന്പന്തീൽ നില്ക്കാന് വേണ്ടീട്ടാണ് നമ്മളിതെല്ലാം ആഘോഷിക്കുന്നത് നമ്മളുടെ മലയാളം നമ്മളുടെ ഭാഷയാണ് നമ്മളുടെ മാതൃഭാഷയാണ് നമ്മൾ ആദ്യം ജനിക്കുമ്പോള് നമ്മൾ അമ്മയെന്ന് വിളിച്ച് തുടങ്ങുന്നത് മുതല് നമ്മള് മരണം വരെ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ഭാഷ അത് മലയാളികള് അവരവരുടെ സാംസ്കാരികള്ടേം മുറുക്കിപ്പിടിച്ച് കൊണ്ടാണിതെല്ലാം ചെയ്യുന്നത് മലയാളം നമുക്ക് എന്താ പറയുന്നത് ശരീരത്തിൽ ഇഴഞ്ഞ് ചേര്ന്ന ഭാഷയാണ് നമ്മൾ എത്ര ഭാഷകള് പടിച്ചാലും നമ്മളുടെ നമ്മളുടെ മലയാളം വിട്ട് നമ്മൾ സംസാരിക്കുകയില്ല നമുക്കൊരു അപകടം പറ്റിയാലും നമ്മൾ ആദ്യം അമ്മേയെന്നാണ് അല്ലെങ്കില് ദൈവമേ നമ്മളുടെ മലയാളം മാതൃഭാഷ മാത്രമേ നമ്മൾ സംസാരിക്കൂ എത്ര ലാങ്വേജ് നമ്മൾ അറിഞ്ഞാലും നമ്മളീ ഭാഷയിൽ മാത്രമേ സംസാരിക്കത്തൊള്ളു നമ്മുടെ ഭാഷയുടെ തനതായ രൂപമാണ് നമ്മളുടെ ഓരോ ആഘോഷങ്ങളും നമ്മള് ഭാഷ മലയാളികളാണ് ഏറ്റോം കൂടുതൽ ആഘോഷങ്ങൾ ഉത്സവം മുതൽ ഓരോ കാര്യങ്ങളും ഉത്സവം വിഷു നമുക്ക് ഓരോ മാസത്തെ മാസപ്പിറവി അതുപോലെ തന്നെ എന്താ പറയുന്നത് ഓണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മള് മലയാളികളാണ് ഏറ്റോം കൂടുതൽ ചിന്തിക്ക ചെയ്യുന്നത് നമ്മളുടെ ഭാഷ നമ്മളുടെ ആഘോഷമാണ് നമ്മളത് ആദരിക്കാന് വേണ്ടി നമ്മൾ എവിടെയും നമ്മളുടെ ഭാഷ മുന്പന്തീല് നിര്ത്താനേ നോക്കത്തൊള്ളൂ ഒരു രാജ്യത്ത് ചെന്നാലും നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും നമ്മൾ ഭാഷയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി അവിടെയുണ്ടായിരിക്കും അതാണ് നമ്മുടെ ഭാഷയുടെ മഹതത്വം